ആ ഇത് ട്രാവൽ ഏജൻസി അല്ലേ ആ എനിക്കൊന്ന് തിരുവനന്തപുരം വരെ പോവണമായിരുന്നു ആ അപ്പോൾ അവിടെ എനിക്കൊരു പത്ത് പതിനഞ്ച് പേരുണ്ടാവും എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കൊന്ന് അവിടം വരെ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരെ പോവാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് കുറച്ച് സ്ഥലമുണ്ട് കന്യാകുമാരി അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോവാനുണ്ട് ആ അതെ അതെ ആ അപ്പോൾ ഒരു ട്രാവലർ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആ ഓക്കെ ട്രാവലറിന് എത്രയാണ് റേറ്റ് ഒക്കെ വരുന്നത് റെന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ പോവുമ്പോൾ എത്ര റെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഓക്കെ ഓക്കെ ആ ആ അല്ല നമ്മളിപ്പം എന്തെങ്കിലും പ്രൊമോ കോഡ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആപ്പ് വഴി ബുക്ക് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും പ്രൊമോ കോഡ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിഴിവോ കാര്യങ്ങളൊക്കെ കിട്ടുവോ ആ ഓക്കെ ഓക്കെ അല്ല ഇപ്പം ആപ്പ് വഴി അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നേരിട്ട് വന്നിട്ടോ ആ ഇപ്പം നമ്മൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ വരുമല്ലോ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വിളിച്ച് ഇതേപോലെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഇപ്പോൾ നിങ്ങളിപ്പോൾ നാല്പത്തഞ്ച് അല്ലേ പറഞ്ഞത് അപ്പം നാല്പത്തഞ്ചിൽ നിന്ന് കുറച്ച് ഒരു അഞ്ചൊക്കെ കിഴിവ് കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ ആ ഓക്കെ ഓക്കെ ആ ആ ആ അത്രയും കിട്ടില്ല അല്ലേ ആ ഓക്കെ അപ്പോൾ നമ്മൾ ആപ്പ് വഴിയോ ഏതിലാണ് നമുക്ക് കൂടുതൽ പൈസ കുറച്ച് ലേശം കിട്ടുന്നത് ആപ്പ് വഴിയാണോ ആ ഓക്കെ അങ്ങനെ ഞങ്ങൾ ആപ്പ് വഴി ബുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം എന്താണ് നിങ്ങളുടെ ആപ്പിൻ്റെ പേരെന്തായിരുന്നു ആ ഓക്കെ പ്ലേസ്റ്റോറിൽ ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞങ്ങൾ അത്തിനകത്ത് കയറിയിട്ട് നമ്പർ അടിച്ച് കയറുക അത് കഴിഞ്ഞിട്ട് ആ ഒരു ഒ ടി പി വരും ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ എന്നിട്ട് അത് ഇതാക്കിയാൽ മതി അല്ലേ ആ ഓക്കെ ഓക്കെ പ്രൊമോ കോഡ് ഒന്ന് എനിക്ക് വാട്സ്ആപ്പ് ചെയ്തുതരുമോ ഓക്കെ ഓക്കെ ആ അത് അടിച്ചാൽ മതി അല്ലേ ആ ശരി ശരി എന്നാൽ ഞാൻ അത് അടിച്ചിട്ട് കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ അത്രയും ഇപ്പം നാല്പത്തഞ്ചല്ലെ നിങ്ങൾ പറയുന്നത് ആ നമ്മൾ സ്ഥലവും ഇതെല്ലാം കൊടുത്താൽ മതി അല്ലേ പോവേണ്ടത് ആ ഓക്കെ ഓക്കെ ആ അപ്പം അതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരും ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാൽ അത് അടിച്ചു നോക്കട്ടെ ഒന്ന് മറ്റന്നാളത്തേക്ക് ആയിരുന്നു അപ്പോൾ അതിനകത്ത് ബുക്ക് ചെയ്തുകഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ വണ്ടി എത്തില്ലേ ഓക്കെ ഓക്കെ ഓക്കെ ആ എന്നാൽ ഞാൻ അതിനകത്ത് ബുക്ക് ചെയ്തിട്ട് നോക്കട്ടെ ഒന്ന് ഓക്കെ എന്നാൽ